കരകൗശല വിദഗ്ധന്മാരും പ്രാദേശിക കലാകാരന്മാരൊക്കെ നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിലും അവർ പ്രത്യേകിച്ച് ക്യാമ്പുകളോ പരിശീലന പരിപാടികളൊന്നും അങ്ങനെ നടത്തി കണ്ടിട്ടില്ല ആ പക്ഷെ ഏറെ കുറേ ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒന്നു രണ്ട് വെക്കേഷൻ അതായത് സ്കൂളില്ലാത്ത സമയത്ത് ചില കുട്ടികൾക്കൊക്കെ കലാകാരന്മാർ അതായത് ഡ്രോയിംഗ് പെയിൻ്റിംഗ് അതുപോലെ പുരാവസ്തു കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് മേക്കിംഗ് അങ്ങനെയൊക്കെയും പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ട് ഡാൻസ് അയ്യോ എന്താ പറയുക വാദ്യോപകരണങ്ങളുടെ പഠിത്തം അതൊക്കെ നമ്മൾ ചെയ്യുന്നതു കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അതിനായിട്ടവർ പ്രദേശത്ത് എന്തെങ്കിലും ക്യാമ്പുകളേക്കാളുപരി അവർ ചെയ്യാറുള്ളത് ഈ കരകല കൗശല വസ്തുക്കൾ അതായത് ഇപ്പോൾ പെയിൻ്റിംഗ് ചെയ്തതും വരച്ചതും ആയിട്ടുള്ളേൻ്റെ എക്സിബിഷനൊക്കെ നടത്തി കുട്ടികളെ ആൾക്കാർ അങ്ങനെ കാണിക്കാറുണ്ടപ്പോൾ അതെ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചെനിക്ക് നന്നായി പഠിക്കാനുള്ളൊരു താത്പര്യം എനിക്ക് ഡാൻസാണ് അതിന് നമ്മൾ ഡാൻസ് ടീച്ചേഴ്സിനു തന്നെ സമീപിക്കും അതിപ്പോൾ അതായത് കുറച്ച് അതായതിപ്പൊരു ഇരുപത് കിലോ മീറ്ററിൻറ്റുള്ളിൽ എവിടെയായാലും ഒരു ഡാൻസ് ടീച്ചറോ ഡാൻസ് സ്കൂളോ കാണും അപ്പോൾ അവരെ സമീപിച്ചാണ് നമ്മളധികം അത് പഠിക്കാറ് അപ്പോൾ അവരത് ഇങ്ങനത്തെ അതായത് ഈ ക്യാമ്പുകളും പരിശീലന പരിപാടികളൊക്കെ നടത്തുകയാണെങ്കിൽ അത് നല്ലതാണ് തോന്നുന്നു അവരത് നടത്താറുള്ളത് പലപ്പോഴും ഈ എക്സിബിഷൻ വെച്ചിട്ടാണ് നടത്താറുള്ളത് അതിപ്പോൾ എന്തെങ്കിലും ചെയ്ത് ക്യാമ്പുകളിലൊക്കേക്കാളുപരി അവർ എക്സിബിഷൻ നടത്തുമ്പോൾ അവർക്കത് ചിലവായി പോകുകയും ചെയ്യും ആളുകളത് കണ്ടു വന്ന് അവരെ കണ്ടു വന്ന് അവരുടെ അടുത്തേക്ക് കുട്ടികളെയോ അല്ലെങ്കിൽ വലിയവരോ ആർക്കെങ്കിലും താത്പര്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പഠിക്കാനായിട്ട് പോകുകയും ചെയ്യും അത് എല്ലാ തരത്തിലും ഇപ്പോൾ ഡാൻസായിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഇപ്പോൾ നൃത്ത പരിപാടികളാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിപ്പോൾ ഉത്സവങ്ങൾ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നൃത്തം അഭ്യസിക്കും അതുപോലെ തന്നെ ഗാനമേളകൾ അധികം ഗാനമേളകളാണിപ്പോൾ എല്ലായിടത്തും ഈ ചെയ്യുന്ന ഫ്യൂഷൻ അങ്ങനത്തെ എന്തെങ്കിലും ബാൻഡുകൾ അതൊക്കെ ചെയ്യും വാദ്യോപകരണങ്ങളിപ്പോൾ ഇപ്പോൾ അധികം ഉത്സവ സീസണിൽ വരുന്ന വാദ്യ മേളങ്ങളെ പോലെ തന്നെ ഇപ്പോൾ ഉത്സവ സീസണുകളിൽ അന്നത്തെ ദിവസം ആരാധനാലയങ്ങളിൽ രാത്രിയോ പകലൊക്കെയും ഈ നൃത്തങ്ങളും ഈ പാട്ടുകളും ശാസ്ത്രീയ സംഗീതങ്ങളൊക്കെ നടത്തി അങ്ങനെയും ചെയ്യുന്ന പരിപാടികളൊരുപാട് പ്രദേശത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്രയും നല്ല ഉപകാരങ്ങളാണ് അപ്പം നമുക്ക് നൃത്ത്യം അഭ്യസിക്കാനും പാട്ട് പഠിക്കാനൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വേഗം ഇവിടെ ഒരു ഒരു ഏതെങ്കിലും ഒരു ടൗൺ അതായതിപ്പോൾ കുറച്ച് ദൂരം ചെന്ന് ഗ്രാമങ്ങളിലകലെ എവിടെയെങ്കിലും ഒരു നൃത്തം പാട്ടഭ്യസിക്കുന്ന ഒരു ടീച്ചേഴ്സിനെയോ കാണാൻ പറ്റും ഇനിയിപ്പോൾ അതു തന്നെ ഇല്ലെങ്കിൽ നമ്മളവരുടെ നമ്പർ മേടിച്ച് വീട്ടിൽ വന്ന് അവർ പഠിപ്പിച്ചിരുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള കലാകാരന്മാരും വിദഗ്ധരും നമ്മുടെ പ്രദേശത്താളുകൾക്കത് ഉപകാരപ്പെടുത്തി തരുന്നതാണ് അവരെ കയ്യിലുള്ള കലകളാണ് അവർ നമുക്ക് തരുന്നത്